കഴിഞ്ഞ ആഴ്ച ഞാൻ ഓൺലൈനിന്നു ഒരു മൊബൈൽ ഫോൺ ഓഡറു ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് നയൻറ്റി പത്തൊൻപതിനായിരം രൂപയാണ് അതിൽ ഇട്ടിരുന്നത് പക്ഷേ അത് കഴിഞ്ഞു ഞാൻ കടയിൽ ചോദിച്ചപ്പോഴത്തേക്കിനും അതിനു ആകെ പന്ത്രണ്ടായിരം രൂപയേ ഉള്ളു അപ്പം ഒത്തിരി പൈസയാണ് അവർ നിങ്ങളെ മേടിച്ചത് പിന്നെ അതിൻ്റെ എന്താ പറയാ ബാട്രി ലൈഫ് ഒക്കെ ഇത്രനാളല്ലെ ഒരാഴ്ച ആയിട്ടല്ലേ ഉള്ളൂ ഇപ്പോൾ തന്നെ അതൊക്കെ സ്ലോ ആകുന്നുണ്ട് പിന്നെ ക്യാമെറയൊക്കെ നല്ലതാന്നാണ് പറഞ്ഞത് പക്ഷേ അതൊക്കെ ചുമ്മാതെ ആണ് അപ്പോൾ ഒരു റിവ്യൂ എന്നു പറയുമ്പോഴ്ത്തേക്കിനും എന്താ പറയാ ഞാൻ ഈ ഫോൺ മേടിക്കല്ലേ എന്നെ അഡ്വൈസ് തരത്തുള്ള കാരണം എല്ലാം കംപ്ലൈൻറ്റൊക്കെ ആകുന്നുണ്ട് പെട്ടന്നു ഒരഴ്ചക്കുള്ളിൽ